ഇപ്പോൾ കരയിൽ നിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയൊരു പുഴ നീന്തി കടക്കുവാണെങ്കിൽ ചിലപ്പം പുഴക്ക് നല്ല ആഴോം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പം കുത്തി ഒലിച്ച് വരുന്ന മഴയുള്ള സമയത്തൊക്കെ നമ്മളിപ്പോൾ പുഴയിലധവ വീഴുവൊ കാര്യങ്ങളങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടന്ന് ശ്വാസം വലിക്കാണ്ട് നോക്കുക കാരണം മുങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വീണതായിട്ട് തോന്നാണ്ട് നമ്മൾ ശ്വാസം വലിക്കാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയാ പൊങ്ങി പൊങ്ങി വരുന്ന വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ശ്വാസം വലിക്കാൻ വേണ്ടീട്ട് അപ്പോൾ നമ്മളെന്തായാലും താന്ന് കഴിഞ്ഞാൽ ഇപ്പം താഴെ അധവാ വീണ് കഴിഞ്ഞാൽ എന്തായാലും പൊങ്ങി വരും അതിനിടക്ക് നമ്മൾ ശ്വാസം വലിച്ചാൽ നമ്മുടെ മൂക്കിലേക്ക് വെള്ളം കയറുവോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പൊങ്ങി വന്നതിന് ശേഷം മെല്ലെ കയ്യിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കാലും ഇട്ട് അടിക്കുക അപ്പോൾ നമ്മൾ മെല്ലെ നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നീന്തുക നമ്മൾ വല്ലാണ്ട് സ്പീഡ് എടുത്ത് നീന്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇന്നിപ്പം നമ്മൾ അപ്പുറത്തെ കരയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ പെട്ടന്ന് ചാടിയത് മാറിപ്പോയി അങ്ങനെ എന്തേലും പ്രശ്നങ്ങളെക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ നല്ല രീതിയിൽ മെല്ലെ മെല്ലെ നീന്തുക ഇല്ലേൽ നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്ക വന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് കര്യങ്ങളെക്കെയുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കൊള്ള സമയത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ മെല്ലെ നീന്തി നീന്തി പോകുന്നതായിരിക്കും കുറച്ച് കൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഒഴുക്കുള്ള ഒരു സ്ഥലമെത്തുവാണെങ്കിൽ നല്ല രീതീയിൽ കയ്യിട്ടടിച്ച് പോണം പിന്നെ പായലിൽ ചവിട്ടി നമ്മൾ തെന്നി വീഴാനും കാര്യങ്ങളൊക്കെയ്ണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും